പതിനാല് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ട് നാല് രണ്ടായിരത്തി രണ്ട് മൂന്ന് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി നാല്